ഞാനിങ്ങനെ പൈസ ശേഖരിച്ച് ശേഖരിച്ച് ശേഖരിച്ചൊരുപാട് വർഷത്തെ ശേഖരണം ശേഖരിച്ച് ഞാൻ എന്റെ മാതാപിതാക്കളുടെ സഹായത്തോടെ ഞാൻ വാങ്ങിക്കാൻവേണ്ടി നല്ല വിലപിടിപ്പുള്ള ഒരു ഷൂ വാങ്ങിക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ ഒരുപാട് കാലം കാത്തിരുന്ന് വാങ്ങിക്കണം എന്നൊരു തീരുമാനത്തോടെ വാങ്ങിക്കാൻ കിട്ടിയതും വാങ്ങിച്ചതും എനിക്കെല്ലാം മോശപ്പെട്ട ഒരു ചെരിപ്പായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിലിതുപോലെ ഞാനൊരുപാടാഗ്രഹിച്ചും സ്വപ്നം കണ്ടും കിട്ടിയ ചെരിപ്പ് എനിക്ക് ഇത്രയും ഒരു ചീത്ത അനുഭവം ഉണ്ടാക്കിത്തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത് എനിക്കെന്റെ കളറേ ഞാനുദ്ദേശിച്ചതുപോലെയല്ല അത് കിട്ടിയ കളര് വേറെ ഞാൻ നോക്കിവെച്ച കളര് വേറെ ഓർഡര് ചെയ്ത കളര് വേറെ എല്ലാം എല്ലവും മാറിമാറിയാണ് അതിന്റെ ലേസ് പകുതിയും ഇല്ല ഒരു ഷൂവിന് കെട്ടാനുള്ള ഇതില്ല സൈസില്ല എന്റെ സൈസിനേക്കാട്ടില് ഒരുപാട് വലുതാണത് അതിന്റെ അളവ് തെറ്റാണത് ആ അളവ് കളറൊക്കെ പോകുന്നു അത് വെള്ളം നനയുമ്പോഴേ അതിന്റെ നിറമൊക്കെപ്പോയ്പ്പോയി പോരുന്നു നിറമൊക്കെ ഗ്രിപ്പില്ലത് അത് ആകെ ആരോ ഉപയോഗിച്ചതുപോലെ എനിയ്ക്കാണ് തോന്നുന്നത് അത് നല്ലൊരു പ്രോഡക്ടായിട്ടു തോന്നിയില്ല പക്ഷേ ബ്രാൻഡും അതൊക്കെ ഒരേപോലെയാണെങ്കിലും അത് കൊള്ളില്ല അത് ചെരുപ്പ് അത് ഇളകുന്നു അത് കാലില് കെട്ടിനടക്കുമ്പോള് അത് ഒരുപാട് ഇളകുന്നുണ്ടത് അതിന്റെ അടിഭാഗത്തെ അത് അതിങ്ങനെ ഇളകിവരുന്നത് അത് ബെയ്സ് അടിഭാഗം അത് കളറത് പോയത് ഒരു രണ്ട് നാളുപയോഗിക്കാനുള്ളതൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഒരാഴ്ചയില് കൂടുതലിരിക്കുവെന്നെനിക്കറിഞ്ഞില്ല എനിക്ക് എന്റെ എന്നാലും പൈസ പോയത ഒരുപാട് ഞാൻ നോക്കിവാങ്ങിച്ചതാണ് എന്തായാലും പോയി എനിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്റെ കൊളളില്ല ചെരിപ്പ് ഒന്നെങ്കിൽ തിരിച്ചുതരും അതുമൊന്ന് നോക്കുക മാറ്റിക്കിട്ടുമോ എന്നാണ് ഞാൻ നോക്കുന്നത് അറിഞ്ഞൂടാ എങ്ങനെ കിട്ടുമെന്ന് പാറയലോ അത് മോശമാണ് മോശം മോശം ആയിട്ടുള്ള എക്സ്പീരിയൻസായിരുന്നു എനിക്കിത്